നമുക്കുതന്നെ ഇപ്പോൾ മത്സ്യം കഴിക്കണമെങ്കിൽ കടലിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് അവർ കടലിലേക്ക് പോകുന്നത് അങ്ങനെ അവർ കടലിൽ പോകുന്നതു കൊണ്ടാണ് നമുക്ക് മീൻ മത്സ്യം കിട്ടുന്നത് തന്നെ ഇല്ലെങ്കിൽ ഇപ്പോൾ അവർ പോയിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടത്തും ഇല്ല നമ്മൾ മീൻ ഫിഷ്ഷിനെ കുറേ ഫിഷ് കഴിക്കും ഒന്നും ഇല്ലായിരുന്നു പിന്നെയെന്നു പറഞ്ഞാൽ അവർ പോകുന്ന സമയത്ത് അവരുടെ കുടുംബങ്ങൾക്കുള്ള സങ്കടങ്ങളോ അവർ തിരിച്ചു വരുന്നതു വരെ ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതമായിരിക്കും അവരുടേത് ഇങ്ങനെ മത്സ്യത്തിന് മത്സ്യ ബന്ധനത്തിന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജല മലിനീകരണം കാരണം ഈ മഴയും മഴയും ഇടിമിന്നലും ഒക്കെ കാരണം അവർക്ക് കടലിൽ പോകാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ അവർക്ക് വേറെ ഒരു മാർഗ്ഗമില്ല വേറൊരു പണി അവർക്കറിയില്ല മുക്കുവരായിരിക്കും കടലിൽ മീൻ പിടിക്കുന്നത് അവർക്ക് വേറൊരു പണിയും അറിയില്ല അവർ ആ ഒരു പണിക്കേ പോവുകയുള്ളൂ ആ സമയത്തൊക്കെ അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊക്കെ ഉണ്ട്